ഹലോ ഗ്യാസേജൻസി അല്ലെ ഞാൻ കുമരകം അട്ടിപീട്യേൽ നിന്നാണെ വിളിക്കുന്നതെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു ഞങ്ങള് ന ഇവിടെനിന്ന് കോട്ടയത്ത് സ്കൈലൈനപ്പാട്ട്മെൻറ്റിലോട്ട് മാറിയാരുന്നെ രണ്ടു ദിവസമായി അപ്പോള് ഞങ്ങളുടെ ഗ്യാസ്സ് അങ്ങോട്ടൊന്ന് ചേയ്ഞ്ചേത് തരണമെന്ന് പറയാനായിരുന്നു ഓൾറെഡി അത് തീരാറായി ഇരിക്കുകയാണ് അപ്പോള് എത്രയും വേഗം അതൊന്ന് ട്രാൻസ്ഫെറേയ്ത് തരണം എൻ്റെ ഹസ്ബൻറ്റിൻ്റെ പേരിലാണ് അപ്പോള് എത്രയും വേഗം അത് കിട്ടിയില്ലെങ്കില് പറ്റത്തില്ല അപ്പോള് എന്നായിരിക്കും അത് തരുന്നത് അത്രയും ദിവസം അയ്യൊ അത്രയും ദിവസം എടുക്കാമ്പറ്റത്തില്ല ഒന്ന് രണ്ട് ദിവസത്തിനകേലും മാറണം ഓൾറെഡി അത് തീർന്ന് തീരാറായി ഹസ്ബൻറ്റിൻ്റെ പേര് ബിൻസൺ എന്നാണ് കൺസ്യൂമർ നമ്പര് പറയാം ഒൺ റ്റു ത്രീ ഫോർ ഏയ്റ്റ് നയൺ